ഓട്ടം എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ഓട്ടം ഉണ്ട് സാവധാനം ഉള്ള ഓട്ടം ഉണ്ട് സ്പീഡില് സ്പീഡില് അല്ലെങ്കിൽ വേഗത്തില് ഓടുന്ന ഓട്ടം ഉണ്ട് നമ്മള് പതിയെ പതിയെ ഓടുമ്പോഴ് അതിൻ്റെതായ ഗുണങ്ങള് കൂടുതല് സ്പീഡില് ഒടുമ്പോൾ പെട്ടെന്ന് മടുക്കും ക്ഷീണം തോന്നും ഓട്ടത്തില് നമുക്ക് നമ്മുടെ പേശികളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു നമുക്ക് സാവധാനമോടുകയാണെങ്കില് നമ്മുടെ എല്ലാ പേശികൾക്കും ഗുണം കിട്ടും മാനസികമായിട്ടുള്ള ആരോഗ്യം നമുക്ക് കിട്ടും വ്യായാമത്തിലൂടെ നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോഴ് ഓടുമ്പോഴ് മാനസികമായി നമുക്ക് പ്രത്യേക ഒരു ഉണർവുണ്ട് നമ്മുടെ പേശികൾക്ക് ബലം കിട്ടുന്നതിനോട് ഒപ്പം തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനാകമാനം ഒരു ഉന്മേഷം ഒരു ഉത്സാഹം ക്ഷീണവെല്ലാം മാറി നിരന്തരം നമ്മള് ഓടുമ്പഴ് ആരോഗ്യം വര്ദ്ധിക്കും ശരീരത്തിന് ബലം ഉണ്ടാകും കൂടുതല് സ്ഥിരം ഓടുമ്പോൾ പ്രാറ്റ് അല്ല കിതപ്പ് കുറയും അങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് മാനസികമായും ശാരീരികമായും നല്ല ഉന്മേഷം എന്തിനേയും നേരിടുവാനുള്ള ഒരു ഉൾക്കരുത്ത് നമുക്കുണ്ടാകും ഈ ചടഞ്ഞ് കൂടിയിരിക്കുന്ന ആ രീതിയെല്ലാം മാറി എന്തെങ്കിലും ഒക്കെ ചെയ്യണം ഇല്ലെങ്കിലെന്തെങ്കിലും ഒക്കെ പ്രവർത്തിക്കണം എന്നുള്ള മനോഭാവം നമുക്ക് ഉണ്ടാകും പലപ്പോഴും ചെറുപ്പത്തില് ഞാനൊരു സ്പോർട്സ് കാരനായിരുന്നു ഓട്ടം മാത്രവല്ല ലോങ്ങ് ജമ്പ് ഹൈ ജമ്പ് ട്രിപ്പിൾ ജമ്പ് പോൾ വാൾട്ട് ഇമ്മാതിരിയുള്ള സ്പോർട്സ് ഐറ്റംസിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട് നിരവധി സമ്മാനങ്ങള് വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വളരെ മെച്ചമായ രീതിയിൽ ഉതകുന്ന കാര്യങ്ങളായിരുന്നു ഇപ്പോഴും അതിന്റെതായ ഗുണങ്ങള് നമ്മുടെ ജീവിതത്തില് അനുഭവിക്കുന്നു ശാരീരികപരമായിട്ട് ആരോഗ്യപരമായിട്ടും ഒക്കെ മാനസികപരമായിട്ടും ഒക്കെ നല്ല ഉന്മേഷം ഉത്സാഹം സന്തോഷം സമാധാനം ഇതെല്ലാം നമുക്കുണ്ട് നമ്മുടെ ടെൻഷനുകൾ ഉത്കണ്ഠകൾ ആകുലതകള് ഇമ്മാതിരിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു പരിധി വരെ ആശ്വാസമാണ് സഹായകരമാണ് വ്യായാമം ചെയ്യുക ഓടുക എന്നുള്ളതൊക്കെ ശരീരത്തിന് എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷവും ഉണർവും പലപ്പോഴും ലഭിക്കാറുണ്ട് നല്ല രീതിയില് ഓടിക്കഴിയുമ്പോഴ് ഭക്ഷണം കഴിക്കുവാനും അത് ദഹിക്കുവാനും എല്ലാത്തിനും വളരെ മെച്ചപ്പെട്ട കാര്യങ്ങളാണ് അതുപോലെ വ്യായാമം ചെയ്ത് കൂടുതല് കാര്യങ്ങള് ചെയ്യാനുള്ള ഉത്സാഹം ഉണർവ് ഇതെല്ലാം നമുക്ക് ലഭിക്കും അങ്ങനെ വ്യായാമം ചെയ്യുന്ന ശരീരത്തിന് പൊതു എപ്പോഴും തന്നെ ഒരു ഉന്മേഷവും ഉണർവും ഉണ്ടാകും ഓക്കെ